നൃത്ത അവതരണത്തിനെക്കുറിച്ച് പറയുകയാണെങ്കില് ഒര് നൃത്തത്തില് ഏറ്റോം ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ചില കാര്യങ്ങളൊക്കൊണ്ട് അപ്പോ അതിൻ്റെ സ്റ്റെപ്പാണെങ്കിലും അത്പോലെ തന്നെ മേക്കപ്പ് വസ്ത്രം തുടങ്ങിയ ഓരോ കാര്യങ്ങളും ഓരോ നൃത്തത്തിനും ഓ പല തരത്തിലുള്ള വസ്ത്രങ്ങളും മേക്കപ്പുകളും ഓൾമോസ്റ്റ് അത് ഒള്ളതാണ് ഏ അപ്പോ അതിനകത്ത് അത് അതൊരു സ്റ്റെപ്പിലും ആ ഒര് മേക്കപ്പിലും വസ്ത്രത്തിലും എക്കെ ഒര് ഡാൻസ് പൂർണ്ണമാകുകയാണെങ്കിൽ അത് കാണികൾക്ക് വളരെയധികം ഒരു രസകരമായ അല്ലെങ്കിലത് അവർക്ക് വളരെയധികം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒന്നുതന്നെയെന്ന് പറയുവാന് സാധിക്കും അതുപോലെ തന്നെ അത് ഈ ഒരു നൃത്തത്തിനെ വളരേയധികം സ്വാധീനിക്കുന്നൊരു ശക്തി തന്നെയാണ് അതിൻറ്റൊരു സ്റ്റെപ്പ് എന്നു പറയുന്നതും അപ്പോ ഓരോര് നൃത്തത്തിനും വളരെ പ്രധാനമായ ചില ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ചില നൃത്ത ചുവടുകൾ നമുക്ക് കാണാം അതില് ആ ആ നൃത്തത്തിലും വളരെ രസ രസകരമായിരിക്കും ഓരോ നൃത്തത്തിനും ഇപ്പോ ഓരോരോ തിരുവാതിര ഒപ്പന ഇങ്ങനെ തൊടങ്ങിയ ചില ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റായിട്ടൊള്ള വളരെ ഓരോന്നിനും ഓരോ സ്റ്റെപ്പുകളായിരിക്കും അപ്പോ അതിൻ്റെ ആ ഒര് നൃത്തം തന്നെ കാണുവാൻ കാണികള് കാണുന്നത് വളരെ രസകരമായ ഒര് രീതിയിലും ആസ്വാദന രീതിയിലായിരിക്കും അപ്പോ മേക്കപ്പാണെങ്കിലും ഒരു മേക്കപ്പും ഒരു നൃത്തത്തിനൊരു മേക്കപ്പും വസ്ത്രവും എല്ലാം കൂടി അടങ്ങുന്നതാണെങ്കിൽ വളരെ തൃപ്തികരമായ രസ കാണികൾക്ക് വളരെ രസകരെമായ ഒന്ന് തന്നെയായിരിക്കും എന്ന് പറയാം ഓരോ നൃത്തങ്ങൾക്കും പലതരത്തിലുള്ള ഓരോ പ്രത്യേകതകള് ഉണ്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ളൊരു കാര്യാണ് അപ്പോ ഒര് നൃത്തം കളിക്കുവാണെങ്കിലും അയിനാകത്ത് ഏറ്റവും അതിൻ്റെ സ്റ്റെപ്പ് കാണികൾക്ക് മുമ്പില് അവതരിപ്പിക്കുന്നതും ആ വസ് ഏത് വസ്ത്രമാണോ ആ ഒര് നൃത്തത്തിന് അനുയോജ്യയമായൊരു കാര്യം മേക്കപ്പാണോ അതിന് അനുസരിച്ചുള്ള ഒര് ഇത് ചെയ്യുവാണെങ്കില് കാണികൾക്ക് ഏറ്റോം അധികം വളരെ അവർക്ക് ആസ്വദിക്കുവാന് കഴിയും ആ അതാണ് ഒര് നൃത്തത്തിൻ്റെ ഏറ്റൊവും വലിയ ഒരു പൂർണ്ണത എന്നും പറയുവാൻ സഹായി സാധിക്കും പിന്നേന്ന് പറയാണെങ്കില് ഇനിന്ന് അനുസ്മരണീയമായ ആകുന്നത് അനുസ് അതിപ്പൊ പറഞ്ഞതു പോലെ തന്നെ പല തരത്തിലും വളരെ പ്രയോജനകരമായ നൃത്തം നമുക്ക് സഹായകരമായി തീരും വളരെ ഇമ്പോർട്ടൻറ്റാണ് എന്നും പറയാം നൃത്ത അവതരണമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നിത്യ ജീവിതത്തിലും നമുക്ക് ഒര് ഒരു ഒര് ഇത് കാണുമ്പോ നമ്മടെ മനസ്സില് വരുന്നൊരു ഇതാണ് നൃത്തച്ചുവടുകൾ വെക്കുവാന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ ഇമ്പോർടെൻറ്റായിട്ടുള്ളൊരു കാര്യമാണ് മേക്കപ്പ് വസ്ത്രം ഈയൊരു സംഗീതം തുടങ്ങിയ ഒര് ഇതൊക്കാന്ന് പറയുന്നത് വളരെ ഇംമ്പോർടെൻറ്റായിട്ടുള്ളൊരു കാര്യവാണ് അതിലൂടെ തന്നെ നൃത്താവതരണം അനുസ്മരണീയമാകുന്നത് എങ്ങനെയാണ് സ്വാധീനിക്ക്ന്നതെന്നും ഇത് പറയും